വിദ്യാഭ്യാസ സംവിധാനം ഒരുപാട് മെച്ചപ്പെടേണ്ട ആവശ്യങ്ങളുണ്ട് പ്രത്യേകിച്ച് ഗ്രാമ പ്രദേശങ്ങളിലായിക്കോട്ടെ ഒരുപാട് സൗകര്യക്കുറവ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിൽ ഇങ്ങനെ സ്കൂളുകളൊക്കെ ഉണ്ടെന്ന് ആൾക്കാർക്ക് ഇപ്പോഴും അറിവില്ല അല്ലെങ്കിൽ ഗ്രാമ പ്രദേശങ്ങളിൽ പൊതുവായിട്ട് അങ്ങനെ ഉൾപ്രദേശങ്ങളിൽ മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാഭാസ വിദ്യാഭ്യാസം ലഭിക്കില്ലയെന്നൊരു ധാരണ പൊതുവേ ആളുകൾക്കുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും എന്താ പറയുക ടൗൺ ഏരിയകളിലും പട്ടണങ്ങളിലൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വിടാറുള്ളത് ആ ഒരു കാര്യത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് പിന്നെ സൗകര്യങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്താ പറയുക സർക്കാർ സ്കൂളുകളിൽ അതിൻറ്റേതായ പരിമിതികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവിടെയും എല്ലാ ഇതൊക്കെ വന്നാൽ കുറച്ചും കൂടി മെച്ചപ്പെടും അതിൻറ്റേതായ രീതിയിൽ എല്ലാ കുട്ടികളും കഴിവുള്ള കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ അപ്പോൾ അവർക്ക് അതിൻറ്റേതായ സൗകര്യങ്ങളും മറ്റും കൊടുക്കുമ്പോൾ അവരുടെ അവരുടെ ഉള്ളിലുള്ള കലകളും മറ്റ് കാര്യങ്ങളൊക്കെ പുറത്ത് വരുന്നതാണ്